വരയ്ക്കുന്നവർക്കായി ഏറ്റവും അനുയോജ്യമായ ഒന്ന് വര നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും നന്നായി മെച്ചപ്പെടുത്തുവാൻ നമ്മൾ ഒരു ചിത്രത്തെ എത്ര കൂടുതൽ നിരീക്ഷിക്കുന്നുവോ അത്ര കൂടുതൽ നമുക്ക് ആ ചിത്രത്തിൽ നിന്നും പലതും പഠിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ നിലവിൽ തന്നെ യൂട്യൂബിൽ കൊ കുറെ ചാനലുകളുണ്ട് ഒട്ടനവധി ചാനലുകളുണ്ട് നിരവധി ഡ്രോയർ അധ്യാപകർ നിരവധി ഡ്രോയിംഗ് അധ്യാപകർ എങ്ങനെ വരയ്ക്കണം ഏതേത് ഷെയ്ഡ് കൊടുക്കണം എപ്പോഴൊക്കെയാണ് ഏതൊക്കെ പെൻസിലുകളാണ് ഉപയോഗിക്കേണ്ടത് വരയ്ക്കാൻ വളരേ നിരവധി ടൈപ്പ് ഓഫ് പെൻസിലുകൾ ഉണ്ട് സൊ ഏതൊക്കെ ടൈപ്പ് ഓഫ് പെൻസിലുകളാണ് ഉപയോഗിക്കേണ്ടത് പല ഷെയ്ഡ്സിനും പല കളറാണ് നമക്ക് ലഭിക്കുക ഇപ്പൊൾ മുടി കറുപ്പിക്കണങ്കിൽ ഇന്ന ഷെയ്ഡ് ഉപയോഗിക്കാം കണ്ണ് വരക്കണമെങ്കിൽ അതുപോലെ തന്നെ മുഖത്ത് ഷെയ്ഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ പലതിനും പല ഷെയ്ഡ്സ് ഓഫ് പെൻസിലുകളുണ്ട് അതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഒട്ടനവധി യൂട്യൂബുകൾ യൂട്യൂബിലെ ചാനലുകളുണ്ട് ഞാനേറ്റവും കൂടുതൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കില് യൂട്യൂബ് നോക്കി പഠിക്കുക എന്നുള്ളതാണ് വളരെയധികം വ്യൂസ് ഉള്ള ചാനെൽസ് എടുക്കുക നിങ്ങക്കെന്താണോ ആവശ്യം അത് സെർച്ച് ചെയ്യുക അത് നോക്കുക അത് പഠിക്കുക ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ചിത്രകാരന് വേണ്ടത് ക്ഷമയാണ് ക്ഷമ എത്രത്തോളമുണ്ടോ അത്രത്തോളം ആ ചിത്രം നന്നാകും കൂടുതൽ നിരീക്ക നിരീക്ഷിക്കുക ചിത്രം വളരേ ക്ഷമയോടെ വരയ്ക്കുക